ഹലോ ഡോക്ടറല്ലേ ആ എനിക്ക് അല്ലെനിക്ക് ഉറക്കം തീരെ കിട്ടുന്നില്ല പിന്നെ പഠിക്കുമ്പോൾ തീരെ കോൺസൺട്രേഷനില്ല പിന്നെ കുറച്ച് കുഴപ്പങ്ങളുണ്ട് ഉറക്കം ആ പിന്നെ പഠിക്കുമ്പം ഒരു കോൺസൺട്രേഷൻല്ല പിന്നെ പിന്നൊന്നുമില്ല ഇതാണ് മെയിനായിട്ട്

അതെയതെ വേറെ അസുഖമൊന്നുല്ല എനിക്ക് ഈ രണ്ട് പ്രോബ്ലം മാത്രേയുള്ളു ഞാൻ ഒരു മൂന്ന് മണിക്കൂറ് ആ ഞാൻ ഒരു പത്തര ഒരു മൂന്ന് മണി നാല് മണിയൊക്കെ ആകുമ്പോൾ എണീക്കും ആ അതെ അതെ അതിപ്പമൊരു നാല് അഞ്ച് മാസമായി

ആ എനിക്ക് ആദ്യം ഒരു ഷുഗറൊണ്ടായതോണ്ട് അതിന് മരുന്ന് കഴിച്ചോണ്ടിരുന്നതാണ് കണ്ടിന്യൂസായിട്ട് ആ രണ്ട് മാസം മുൻപ് അ

ഇല്ല അത്രയ്ക്കില്ല ആ ഗുളിക ഇല്ലാത് എന്താ ടാബ്ലെറ്റ് കുടിച്ചതിന് ശേഷം ആ ശേഷം ആ ഗുളിക കുടിക്കലിപ്പം നിർത്തി ഷുഗർന് കുറവില്ല പക്ഷേ ഉറക്കം കിട്ടണില്ല അത് എന്താ ഒരു അസുഖത്തിന് ഭേദമില്ലാത്തോണ്ട് നിർത്തി അതെയതെ അതെ പകലുറങ്ങത്തില്ല ആ എനിക്ക് വായിക്കുന്നതൊന്നും മനസിലാവുന്നില്ല

ആ ആ ഓക്കെ ഓക്കെ ശരി